സൃഷ്ടിപരവും സ്വാധീനശക്തിയുള്ളതുമായ പരസ്യങ്ങൾ എന്നും മനുഷ്യരെ വികാരത്തിലൂടെ വികാരപരമായി കണക്റ്റ് ചെയ്യുന്നുണ്ട് ബന്ധപ്പെടുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു അത് തന്നെയാണ് പല കമ്പനികളുടെയും ബ്രാൻഡുകളുടെയും വിജയമെന്ന് പറയുന്നത് ഉദാഹരണത്തിന് ലെവിസ് എന്ന ബ്രാൻഡിൻ്റെ പരസ്യം ഇമോഷണലി അത് ആൾക്കാരുമായി ഒരുപാട് കണക്റ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഇപ്പം ഒരു തുണി എടുക്കാൻ പോവുമ്പോൾ നമ്മൾ ലെവിസ് എന്ന ബ്രാൻഡിനെ കണ്ടുകഴിഞ്ഞാൽ അത് ആര് ആരായാലും ശ്രദ്ധിക്കുന്ന ഒരു ബ്രാൻഡ് ആയിട്ട് അവർ വളർന്നിട്ടുണ്ട് തുണികളുടെ ക്വാളിറ്റി എന്നൊരു എന്ന് എന്നതിലുപരി ആ തുണി ഇടുമ്പോൾ അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഒരു ബ്രാൻഡിൻ്റെ വിജയമെന്ന് പറയുന്നത് അത് ആ പരസ്യത്തിലൂടെ വളരെ വ്യക്തമായി ഒരു കമ്പനി കാണിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ വേറെ രീതിയിലുള്ളത് ഒരു ചോക്ലേറ്റ് ഫഷ്ട് ഭക്ഷ്യ സാധനത്തിൻ്റെ പരസ്യം അപ്പം നമുക്ക് കണ്ടിട്ടുള്ളതാണ് രമേഷും സുമേഷും അവർ ആ ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ലോക പുറം ലോകത്തൊന്നും അവരുടെ മനസ്സ് അവരുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് പോവുകയാണ് അപ്പം ചുറ്റുമുള്ളത് ഒന്നും തന്നെ ചുറ്റുമുള്ളത് ഒന്നിനെപ്പറ്റി തന്നെ അവർ ഒട്ടും അവേർ അല്ല അപ്പം അങ്ങനെയൊരു ഫ്രീഡം സ്വാതന്ത്യം ആ ഭക്ഷണ സാധനം അവരുടെ മനസ്സിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ആ പരസ്യത്തിൻ്റെ ഒരു മെസ്സേജ് ആശയം അപ്പോൾ അത് പലരും ആ ക്രീയേറ്റിവിറ്റിയെ കാണുന്ന ആൾക്കാർ തീച്ചയായിട്ടും അടുത്തൊരു ഷോപ്പിലോ ഓൺലൈൻ വാങ് സാധനം വാങ്ങാൻ പോവുമ്പോഴോ ഇത് ബ്രാൻഡ് കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ അത് വാങ്ങുന്ന വാങ്ങും അതൊരു പരസ്യത്തിൻ്റെ വിജയം തന്നെയാണ് പിന്നെ പരസ്യം ആളുകളിലേക്ക് എത്തിക്കാൻ ഉള്ള വഴികൾ പണ്ടൊക്കെ റേഡിയോ മാധ്യമത്തിലൂടെ മാത്രമാണ് പരസ്യങ്ങൾ വന്നുകൊണ്ടിരുന്നത് ആൾക്കാരിൽ എത്തിക്കൊണ്ടിരുന്നത് പിന്നീട് സിനിമ ഒക്കെ വന്നപ്പോൾ തീയേറ്ററിലൂടെ സ്ക്രീനിൽ കാണിക്കുന്ന പരസ്യങ്ങൾ വന്നുതൊടങ്ങിയത് പിന്നീട് ഈ ടെലിവിഷൻ എന്ന വിസ്മയം കൊണ്ട് ആൾക്കാരുടെ വീടുകളിൽ തന്നെ പരസ്യം എത്താൻ തുടങ്ങി പിന്നെയത് കോടികൾ ടേൺഓവർ കോടികൾ വിലമതിക്കുന്ന കച്ചവടങ്ങളായി മാറി അപ്പം ടെലിവിഷനിലൂടെ ആൾക്കാരുടെ വീട്ടിൽ എത്തിക്കൊണ്ടിരുന്ന പരസ്യങ്ങൾ ഇപ്പം കയ്യിലെ മൊബൈൽ ഫോൺ വഴി ആൾക്കാരുടെ കയ്യിൽ എത്തുകയാണ് ഇപ്പോൾ പരസ്യം അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പരസ്യങ്ങൾ മാറിയിരിക്കുകയാണ്